കേരളത്തിലെ ജനങ്ങളുടെ ഭക്ഷണരീതി അല്ലെങ്കില് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് കപ്പയും മീന്കറിയുമാണ് അല്ലെങ്കില് കപ്പയും ഇറച്ചിയും അല്ലെങ്കിൽ കപ്പയും ചിക്കനും ഒക്കെയാണ് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ആദ്യത്തെ ഭക്ഷണവിഭവം അതുകഴിഞ്ഞാൽ പിന്നെ കേരളത്തിലുള്ള ആള്ക്കാര് കൂടുതലും കഴിക്കുന്നത് അരി ആ ആഹാരമാണ് അരി വെച്ചു ചോറുണ്ടാക്കും പിന്നെ കഞ്ഞി പായസം പിന്നെ ഈ അരിയെ പൊടിച്ച് അതില് നിന്ന് പുട്ട് ഇടിയപ്പം പത്തിരി ഒറട്ടി അപ്പം എന്നിവയെല്ലാം ഉണ്ടാക്കും പിന്നെ ദോശയായാലും അരി മാവും ഉഴുന്നൂകൂടെ ചേർത്ത് അരച്ചാണ് ദോശ ഉണ്ടാക്കുന്നത് ഇതെല്ലാമാണ് കേരളത്തിലെ ആൾക്കാരുടെ ഭക്ഷണരീതിയിൽ പ്രധാനമായിട്ടും അവരുടെ ഭക്ഷണവിഭവത്തിൽ ഉള്പ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ പിന്നെ ഓരോ സംസ്ഥാനങ്ങളനുസരിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും ഭക്ഷണങ്ങളുടെ വ്യത്യാസവും ഭക്ഷണങ്ങളുടെ പേരും വരെ വളരെ വ്യത്യാസമുള്ളതായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ കപ്പയെ ശരിക്കും പറയുന്നത് മരിച്ചീനി എന്നാണ് എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ പറയുന്നത് കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ എന്നൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഫേമസായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഭക്ഷണം അല്ലെങ്കിൽ ഫേമസായിട്ടുള്ളെ ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സംഭവമാണ് ബോളിയും പായസവും അത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ബോളിയും പായസവും ഇല്ലാത്ത ഒരു സദ്യയെ പറ്റി ആലോചിക്കാനേ പറ്റത്തില്ല അതാണ് ഈ ജില്ലയിലെ പ്രത്യേകത പിന്നെ കേരളത്തിലുള്ള ഒട്ടു മിക്ക ആള്ക്കാരും ഇഷ്ടപ്പെടുന്നത് മീനും ഇറച്ചിയുമാണ് മീനെന്ന് പറയുമ്പം കടല്മീന് പുഴമീന് എല്ലാം വരുന്നുണ്ട് ഈ മീൻ ചുട്ടും പൊള്ളിച്ചും ഒക്കെയാണ് കഴിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്നവരാണ് അവർ എല്ലാ കറികൾളും എരിവ് കൂടുതൽ ഇട്ടു കഴിക്കാനാണ് ശ്രമിക്കുന്നത് എരിവും പുളിയും ഉപ്പും എല്ലാം ചേര്ത്ത് കഴിക്കുന്നതാണ് കേരളത്തിലുള്ള ആള്ക്കാര്ക്ക്

പിന്നെ മാത്രമല്ല നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാനും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ താല്പര്യമാണ് ഇപ്പോൾ ഫുഡ് വ്ളോഗേഴ്സ് ഉള്ളത് കൊണ്ട് കേരളത്തിലെ ഏതു കോണിലുള്ള ഭക്ഷണങ്ങളും നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും അത് കണ്ടിട്ട് ഒരുപാട് പേർ ആ ഭക്ഷണം തേടി പോകുന്നവരും ഉണ്ട് അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് കേരളത്തിലുള്ളത് ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണരീതിയും ഭക്ഷണത്തിന്റെ ടേസ്റ്റും ഭക്ഷണശീ ശൈലിയും എല്ലാം വേറെ വേറെ തന്നെയാണ്